ഞങ്ങളുടെ ഈ പ്രദേശത്ത് കൂടുതലും തിരുവാതിര കൈകൊട്ടി കളി ഒപ്പന ഒക്കെയാണ് കൂടുതൽ കണ്ടു വരുന്നത് തിരുവാതിര ഒക്കെ കൂടുതലും ഓണപ്പരിപാടിക്ക് കലോത്സവത്തിനും കൈകൊട്ടി കളി കൂടുതലും ഉത്സവങ്ങളിലൊക്കെയാണ് കണ്ടു വരുന്നത് പിന്നെ ഒപ്പനയൊക്കെ പഴയ മുസ്ലിംകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ എല്ലാവരും കൂടി കളിക്കുന്നതൊക്കെയാണ് കാണാറുള്ളത് കൂടുതലും കലോത്സവങ്ങളിലാണ് ഇത് മൂന്നും വന്നോണ്ടിരിക്കുന്നത് തിരുവാതിരക്ക് ഒക്കെ ഒരു കോംപറ്റീഷൻ ലെവല് ഭയങ്കര എന്താണ് പറയുക എല്ലാവരോടും ഭയങ്കര സീരിയസ് എല്ലാവരും ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും കളിക്കണെ ഫസ്റ്റ് കിട്ടണം എന്നൊക്കൊ ഉള്ളൊരു ആകാംഷയോടൊക്കെ ആയിരിക്കും കളിക്കുന്നത് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുതൽ തന്നെ അതൊക്കെ എടുത്ത് പ്രാക്റ്റീസൊക്കെ എല്ലാവരും ഒരാളുടെ വീട്ടിലൊക്ക കൂടി ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും എന്നാലും അതൊരു ആസ്വദിച്ച് നല്ല സന്തോഷത്തോടെ ഒക്കെ ആയിരിക്കും നമ്മൾ ഡാൻസ് കളിക്കുക പിന്നെ കാണികൾ അവഋക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയും ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളും നമ്മളും അതിൻ്റെ ഇടയിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ ആണല്ലോ നോക്കുന്നേ അവർക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷനാണ് പിന്നീട് നമുക്ക് അതിന് കൂടുതൽ കളിക്കാം നമുക്ക് ഇനിയും ഇതുപോലത്തെ പരിപാടികളിൽ ഏർപ്പെടാം എന്നൊക്കെ നമുക്ക് തോന്നും ചെറുപ്പക്കാരാണ് കൂടുതലും അതിനൊക്കെ കൂടുതലും നിക്കണത് പ്രായമായിട്ടുള്ളവർ കാല് വേദന അങ്ങനെ ഒക്കെ പറഞ്ഞ് വേണ്ട എന്ന് വയ്ക്കുകയും പക്ഷേ ചെറുപ്പക്കാർ അതിനെ എല്ലാവരും നല്ല അവരോട് നല്ല ഒരു അഭിപ്രായം പറഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ അതിനനുസരിച്ച് കൂടുതൽ കളിക്കാനും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കളിക്കാനുമൊക്കെ ആയിട്ട് അവർ തീരുമാനിക്കുക ഒക്കെ ചെയ്യും